സാധാരണ തൊഴിലിൽ നിന്നും വ്യത്യസ്തമാണ് മത്സ്യബന്ധനം മത്സ്യബന്ധനം വളരെയേറെ രസകരമായ ഒരു തൊഴിലാണ് വളരെയേറെ ക്ഷമയും കാത്തിരിപ്പും ഒക്കേ വേണ്ട ഒരു തൊഴിലാണ് മത്സ്യബന്ധനം നമ്മൾ കായലിലും പുഴയിലും തോട്ടിലും കടലിലും ഒക്കെ മത്സ്യബന്ധനം ചെയ്യാറുണ്ട് ഇരയെ ചൂണ്ടയിൽ കോർത്ത് മീനിന് തിന്നാൻ കൊടുത്താൽ അത് കഴിക്കുമ്പോൾ മീ ചൂണ്ട വലിച്ച് മീനിനെ പിടിക്കുന്നതും വലിയ വല എറിഞ്ഞ് മീനിനെ പിടിക്കുന്നതും ഒക്കെയുണ്ട് കടലുകളിലൊക്കെയാണെങ്കിൽ ഒന്നും രണ്ടും ആഴ്ചകളില് ഒക്കേ നമുക്ക് കടലില് മീൻ പിടിക്കേണ്ടി വരും അവിടെത്തന്നേ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് സൗഹൃദം ഒക്കേ പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു സുഖമുള്ള തൊഴിലാണ് മത്സ്യബന്ധനം